തിരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണ ജനങ്ങൾ ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധമായ മോഹന സുന്ദര വാഗ്ദാനങ്ങളിൽപ്പെട്ട് ജനങ്ങൾ നട്ടം തിരിയാറുണ്ട്

ഇമ്മാതിരി ഫ്ലക്സുകളും ബാൻ്റുകളൊക്കെ വെച്ച് വിവിധ ഇടങ്ങളിൽ അപകടങ്ങളുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് റോട്ടിൽ കൂടിപ്പോലും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് വിവിധ രാഷ്ട്ര പാർട്ടികളുടെ റാലി പൊതുയോഗം പിന്നെ പാർട്ടികൾ തമ്മിലങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്പ്പോര് ചീത്തവിളി എന്നു വേണ്ട നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കൽപ്പോലും നടത്താൻ പറ്റാത്ത ഇല്ലെങ്കിൽ നടത്തി തരികയില്ലാത്ത വാഗ്ദാനങ്ങൾ കണ്ണെല്ലാത്തതെല്ലാം പൊന്നാക്കിത്തരാം പിന്നെ ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ

വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രശ്നങ്ങൾ ഒരു പാർട്ടി വരുന്നു പോകുന്നു അടുത്ത പാർട്ടി വരുന്നു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നീട് മലിനീകരണങ്ങളുണ്ട് ഈ കൊടി തോരണങ്ങൾ ഇമ്മാതിരിയുള്ള സാധനങ്ങളൊക്കെ വഴിയിൽക്കൂടിയും റോഡിൽ കൂടിയെല്ലാം വലിച്ച് വാരിയെറിഞ്ഞിടുന്നു ഇതൊക്കെയാണ് പിന്നെ മൈക്കിൻ്റെ സൗണ്ട് ഒരു പാർട്ടി വന്നു പോകുന്നു മൈക്ക് അനൗൺസ് ശബ്ദ കോലാഹലം അതു പോയിക്കഴിയുമ്പോൾ അടുത്ത പാർട്ടി വരുന്നു പ്രത്യേകിച്ച് വഴി സൈഡിൽ കിടക്കുന്നവരുടെ വീടുകളുള്ളവർക്ക് രാത്രി പോലും കിടന്നുറങ്ങാൻ പാടാത്ത രാത്രി പത്ത് മണി വരെയാണ് മൈക്കിൻ്റെ സാങ്ക്ഷൻ കിടന്നുറങ്ങാൻ പാടില്ലാത്തവസ്ഥകൾ വരുന്നു

രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടികൾ പിന്നെയതിനെ ന്യായീകരിക്കൽ അതു ശരിയാണ് അതു തെറ്റാണ് ഇമ്മാതിരിയുള്ള പ്രശ്നങ്ങൾ

മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മയക്കു മരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഓരോ പാർട്ടിയും ജയിക്കുന്നതിനു വേണ്ടിയിട്ട് എതിർ പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളും കുതികാൽ വെട്ട് പ്രശ്നങ്ങൾ അങ്ങനെ ഒരെലക്ഷൻ്റെ സമയത്ത് സാമ്പത്തികമായിട്ടൊരുപാട് പ്രശ്നങ്ങൾ ഈ എലക്ഷൻ നേടുന്നതിനു വേണ്ടിയിട്ട് പൈസ മുടക്കുന്നത് അത് പിന്നീടത് കൈക്കലാ വസൂലാക്കാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലികൾ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ ഒരെലക്ഷനെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് വരെ വിവിധ രീതിയിലുള്ള ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ട് പുതിയ ആണുങ്ങൾക്ക് ഇനി ജയിച്ചാലോ പിന്നെയീ ഇലക്ഷന് മുടക്കിയ പൈസ വസൂലാക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതി അക്രമണം അതങ്ങനെ വേറെയൊരുവശം അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സൗണ്ടുകൾ ഒച്ചപ്പാട് ബഹളം